ആ ഹലോ എടാ മറ്റേ ടർഫിൽ മാച്ച് നടക്കുന്നുണ്ട് നീ കാണാൻ വരുന്നുണ്ടോ എടാ ഇവിടെ നമ്മുടെ താഴത്തെ ടർഫില്ലേ ദീപക്കിൻറ്റെ അവിടെ ടർഫിൽ കളി നടക്കുന്നുണ്ട് നീ കാണാൻ വരുന്നുണ്ടോ ഇപ്രാവശ്യം അവൻ വരുമോന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു വരുമോന്നും ചോദിച്ച് കാരണം ഇപ്പോൾ വന്നൊന്ന് രണ്ട് ടീമ് മാച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഒന്ന് കണ്ട് നോക്കാൻ പറഞ്ഞ് എന്നിട്ട് അടുത്ത മാസം നമ്മുടെ ടീമിൻറ്റെ നടത്താമെന്ന് പറഞ്ഞു അത്പോലെ ഒക്കെ മതിയോന്ന് ചോദിച്ചു പിന്നെ അവനവിടുത്തെ എന്താ സ്കോർ പാനൽൻറ്റെ ഗ്രാസെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഈ ഫുട്ബിള്ളാർ കളിക്കുന്നതിനിടക്ക് ഇതെല്ലാം ചവിട്ടിപ്പറിഞ്ഞ് പോകുന്നതും ഒരു പ്രശ്നമാണ് പിന്നതിനും അവന് വേറെ എക്സ്ട്രാ പേമെൻറ്റക്കെ കൊടുക്കണ്ടേ ഒന്ന് ചെന്ന് കണ്ടിട്ട് വന്നാലോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചായിരുന്നു പിന്നെ ഞാൻ കൊടുത്തില്ല എടാ ഇതിപ്പം നമ്മൾ കളിക്കുന്നതിനിടക്ക് അത് പൂവും പക്ഷേ ഫുട്ബോളിന്റെ ഇടക്ക് എങ്ങനെയത് പറ്റും അത് സ്വാഭാവികം പക്ഷേ അത് മേയ്ൻറ്റനെൻസ്സ് ചെയ്ത് തരേണ്ടത് അവരുടെ പരിപാടിയാണ് അത് കൊണ്ടാണ് ഞാൻ അന്നവർക്ക് നിങ്ങൾക്ക് കാശ് റീഫണ്ടിട്ട് തന്നത് എല്ലാവരും കളിക്കുന്ന അതിന് നമ്മൾ തന്നെയാണ് ചവിട്ടി കളഞ്ഞതെന്ന് അവർക്കാരും എന്താ ഉറപ്പുമുണ്ടോ

ആ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടീമീന്ന് അവന്റെ ടീമ്കാരുടെ കൂടെ കളിച്ചപ്പം ഒന്ന് ഫൗളേയിട്ടില്ലായിരുന്നോ അതിന്റെ വല്ലതും ഇട്ടോ ഇരിത്തുമായിരിക്കും ആ ഞാൻ എന്നാണ് ചെയ്യേണ്ടത് ഇവൻ ഈ കിടന്ന് ഈ ഇത്പോലെ ബഹളം വെക്കുന്നു ഇന്നവന് നോക്ക് വന്ന് കണ്ട് നോക്ക് ഇതുപോലെ ഒക്കെ മതിയോ ഇവിടെ കിടന്ന് എന്നോട് കിടന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞ്കൂടാ നീ എന്നാൽ പറയുന്നത് ദീപക്കിന്റെ അങ്ങോട്ട് പോയി നോക്കണോ അല്ലേ ആക്ച്വലി ഓഫീസീന്ന് ഞാൻ ചോദിച്ചു നോക്കാം കിട്ടുമോന്ന് ആ ഒരു സമയത്ത് ഉച്ചക്ക് ഒന്നിറങ്ങാൻ പറ്റിയൊരു നല്ലതായിരുന്നു നിന്റെ ഓഫീസീന്ന് നീയൊന്ന് ചോദിച്ച് നോക്കാമോ

എടാ അന്ന് എന്നാണ് സംഭവിച്ചത് ദീപക്കിനെ കഴിഞ്ഞ പ്രാവശ്യം സോഹനൊന്ന് ഫൗൾ ചെയ്തിട്ടു അപ്പം അതിന്റെ ഒരു ദേഷ്യത്തിലായിരിക്കും അവൻ ഇതൊക്കെ കിടന്ന് പറയുന്നത് ഓ അതിൽ അതല്ലടാ കഴിഞ്ഞ പ്രാവശ്യത്തെ കളിയിൽ എന്തേലുമൊരു പ്രശ്നമായിരിക്കുമിത് കഴിഞ്ഞ പ്രാവശ്യം അവന്മാരുടെ ടീമിന് രണ്ട് പെനാൽറ്റി കിട്ടുകയും ചെയ്തതിന്റെ പേരിൽ അപ്പം കളി രണ്ടരക്ക് മഴയൊന്നുമില്ലേ നല്ലതായിട്ട് അപ്പഴ്ത്തേക്കും തുടങ്ങും അവന്മാരെയും വിളിക്കാം നീ വണ്ടി എടുക്കുമോ എന്നാൽ ആ പിന്നെ സൈഡിൽ നിന്ന് കണ്ടിട്ട് പോകുന്നേൽ പോര്

എന്നാൽ ഓക്കെയെടാ നമുക്ക് എന്നാൽ അങ്ങനെ ചെയ്യാം

ഓക്കേടാ എന്നാൽ ശരി